എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഓരോ മീഡിയ ആയാലും അതിന് അതിൻ്റെതായ ഒരു സത്യസന്ധത കൈ വരിക്കേണ്ടതുണ്ടെന്നാണ് പറയാറുള്ളത് മൊബൈൽ ഫോണുകള് എന്ന് പറയുമ്പോൾ പത്രങ്ങളെ വെച്ചിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് അതായത് നടക്കുന്ന കാര്യങ്ങള് അപ്പപ്പോഴൊക്കെത്തന്നെ നമുക്ക് ഡെലിവർ ആകും അപ്പോൾ അത് എത്രത്തോളം അതില് സത്യാവസ്ഥ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മള് ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം വെച്ചിട്ട് നമ്മളത് ഷൂട്ട് ചെയ്ത് അത് ലൈവ് ആക്കി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് അത് സത്യമാണോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള യഥാർഥ സ്റ്റോറി എന്താണെന്നുള്ളത് പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്താ നമുക്കത് അറിയാൻ പറ്റുക പക്ഷെ പത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പ് അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം അനലൈസ് ചെയ്യാൻ പറ്റണത് അത്രയും അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നീട് ആ ഒരു ന്യൂസ് അവര് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഒരു ആ ഒരു ടൈം ഗ്യാപ്പ് ആ ഒരു സത്യസന്ധമായ ന്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര അധികം ഹെല്പ്ഫുൾ ആണ് മൊബൈൽ ഫോണിൽ സത്യസന്ധമായ വാർത്തകൾ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മള് ഒരുപാട് സമയം കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് സത്യസന്ധമാണോ ഒരു വാർത്ത എത്രത്തോളം വേല്യുബിളാണെന്നുള്ളത് നമുക്ക് എന്താ അനലൈസ് ചെയ്യാൻ പറ്റും അപ്പോൾ മൊബൈൽ ഫോൺ ആകുമ്പോൾ ഫാസ്റ്റസ്റ്റ് ആണ് നെറ്റ്വർക്ക് ആണ് അത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങള് അവർക്ക് അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും പത്രങ്ങള് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് സമയം പിടിക്കും അതായത് അവർക്ക് ആ ന്യൂസ് അച്ചടിച്ചിട്ട് അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് ആ സമയം പിടിക്കുമ്പോൾ അവര് അത്രത്തോളം ഒരു ന്യൂസിനെ അനലൈസ് ചെയ്യാൻ പറ്റും ഓരോ സെക്കന്റുകള് കൊണ്ടും ഓരോ ന്യൂസും മാറി മറിയാം എന്നല്ലേ പറയാറ് അപ്പോൾ എന്താ ഓരോ ന്യൂസും എത്രത്തോളം വേല്യുബിൾ ആണെന്നുള്ളത് പത്രങ്ങള് നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ് ടി വിയിലും റേഡിയോയിലുമൊക്കെ ലൈവ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങള് കാണണ്ടാവുക പത്രങ്ങള് എന്ന് പറയുമ്പോൾ അതിനെ ഒന്ന് അവര് അനലൈസ് ചെയ്തിട്ട് അവരത് മാക്സിമം ടൈം എടുത്തിട്ടാണ് അവര് പബ്ലിഷ് ചെയ്യുക അപ്പോൾ അവർക്ക് ആ ഒരു ന്യൂസ് എത്രത്തോളം നല്ലതാണ് എത്രത്തോളം സത്യസന്ധമാണ് എന്നുള്ളത് അന്വേഷിക്കാനായിട്ട് നിറയെ ഒരു സമയം കിട്ടുന്നുണ്ട്